ഹലോ ഇത് കസ്റ്റമർ കെയറല്ലെ ഞാൻ ഒരു യാത്രയ്ക്ക് പോവാണേൽ എൻ്റെ മൊബൈൽ നമ്പർ അക്കൊ മൊബൈൽ മൊബൈലിൽ അക്കൗണ്ട് ബാലൻസൊണ്ടോന്നൊന്ന് നോക്കാവോ അക്കൗണ്ട് ബാലൻസൊണ്ടോന്ന് നോക്കാവോ ഞാൻ ഡിസംബർ ആറാന്തി തൊട്ട് പത്താന്തിയാണ് യാത്ര ആറാന്തി തൊട്ട് പതിനാറാന്തി ഞാൻ തിരിച്ചെത്തത്തൊള്ളു അത് വരെ എൻ്റെ മൊബൈലിൽ ബാലൻസൊണ്ടോന്നൊന്ന് നോക്കണം നോക്കി ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് റീ ഒന്ന് റീചാർജ് ചെയ്തേക്കണെ അതിനു വേണ്ടി വിളിച്ചതാണ്